ട്രാൻസ്പോർട്ട് ഏജൻസി അല്ലെ ഇന്ന് ഞാൻ ട്രിവാൻഡ്രത്തേയ്ക്ക് പോകാൻ വേണ്ടിയിട്ടു ഞാനൊരു ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അയ്യോ താങ്കൾ എന്താ ചെയ്തത് അത് ഒരുമാതിരി എന്ന് പറഞ്ഞാൽ മോശം അവസ്ഥ ആയിരുന്നു ആ കാർ ആ കാർ ഞാൻ എൻ്റെ വീട് പാലക്കാട് ആണ് അവിടെ നിന്ന് ട്രിവാൻഡ്രം വരെ എത്താൻ വേണ്ടിയിട്ടാണ് ഒരു നല്ല ഊബർ തന്നെ ഞാൻ ബുക്ക് ചെയ്തത് സംഭവം അവിടെ ഒക്കെ സീറ്റുകൾ കീറിയിട്ട് അതുപോലെ തന്നെ കാറ് വലിക്കുമ്പോൾ ആ ഹാൻഡിൽ പൊട്ടി ഇരിക്കുക പിന്നെ വന്നിട്ട് നിലത്ത് അവിടെ കാറിൻ്റെ ആ നിലത്ത് വിരിയ്ക്കുന്ന സംഭവങ്ങളൊന്നുമില്ല മൊത്തം അവിടെ വെള്ളവും ബിസ്കറ്റിൻ്റെ കവറുകളും പിന്നെ മിച്ചർ പായ്ക്കറ്റുകളും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഇടവഴി എത്തുമ്പോഴേയ്ക്കും തന്നെ കാർ പഞ്ചറായി പഞ്ചറായിട്ട് ഒന്നും ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു താങ്കൾ എന്ത് എന്താ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അന്നാലെ ഞങ്ങളൊരു വഴിയ്ക്ക് പോകുന്ന ആൾക്കാരല്ലെ അപ്പോൾ ഇത്ര നല്ല ഊബർ തന്നെ ഞങ്ങൾക്ക് ബുക്ക് ചെയ്തു തരണ്ടെ അദ്ദേഹം ഒര് ഒര്മാതിരി ചൂടാകൽ വേറെ കുറേ ഇങ്ങനെ സംസാരിച്ചു ആളോട് ആളോട് നന്നായിട്ടങ്ങനെ പെരുമാറി എല്ലാം ചെയ്ത് ഏട്ടാ ഇന്നെത്താൻ പറ്റുമോ എനിക്ക് ഇന്നസ്ഥലത്ത് എനിയ്ക്കാണെന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂവിന് ലേയ്റ്റ് ആയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ടെൻഷൻ അടിച്ചിട്ടിരുന്നത് പക്ഷെ ആൾ എൻ്റടുത്ത് ഒരുമാതിരി ചൂടാകുകയൊക്കെ ചെയ്തു എന്തിനാണ് നിങ്ങളെന്നാൽ പിന്നെ വേറെ ബുക്ക് ചെയ്യണ്ടേ എന്തിനാണ് എൻ്റെ എൻ്റെ കാറിനെ കുറ്റം പറയുന്നത് ഇറങ്ങി പോകാനൊക്കെ എൻ്റടുത്ത് പറഞ്ഞു ഇങ്ങനെയാണോ ഒര ഒരാൾ മറ്റൊരാളുടെയടുത്ത് ബിഹേവ് ചെയ്യേണ്ടത് വളരെ മോശമായി പോയീട്ടോ ഇനി ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു ഊബറൊന്നും ബുക്ക് ചെയ്തു കൊടുക്കരുത് പ്ലീസ്